കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചെടികളെ സംരക്ഷിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് എങ്കിലും നമ്മള് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള കാലാവസ്ഥകളിൽ ഓരോ ചെടികൾക്കും ഓരോ തരത്തിലുള്ള ചിലർക്ക് പന്തലിട്ട് കൊടുക്കുന്നു ചിലതിന് തണൽ ഒഴി ഒ മറ്റേ എന്തെങ്കിലും വെച്ച് പൊതിഞ്ഞ് കൊടുക്കുന്നു അത് അല്ലാ എങ്കിൽ അവർക്ക് തണൽ കിട്ടാൻ വേണ്ട പച്ച കളറിൽ ഉള്ള ടാർപോളിൻ പോലുള്ള അല്ലാ ഒരു സ എന്തെങ്കിലും തുണികളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അവരെ സംരക്ഷിക്കുന്നു അതുപോലെ വെള്ളം രണ്ടുനേരം കൊടുക്കും ഇനി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടികൾ വളർത്തിയെടുക്കുന്നത് ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ച് ഉള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കാനുണ്ട് മഴയാണെങ്കിൽ അതിനനുസരിച്ച് വെയിൽ ആണെങ്കിൽ അതിന് അനുസരിച്ച് മഞ്ഞ് ആണെങ്കിൽ അതിന് അനുസരിച്ച്